ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടേ രണ്ടേ രണ്ടായിരത്തി അഞ്ച് ആറ് അഞ്ച് രണ്ടായിരത്തി പത്ത് പത്ത് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട്